ആ ഹലോ ഊബർ അല്ലേ ആ ആ ചേട്ടാ ഞാനൊരു ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒരു ട്രിപ്പ് ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണേ അടുത്ത മാസം ആറാം തീയതി ആണ് ട്രിപ്പ് ആ മൂന്നാറ് പോകാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളൊരൂ അഞ്ച് പേരുണ്ടാവും അതെ അടുത്ത മാസം മൂ ആറാം തീയതി രാവിലെ പോയിട്ട് വൈകിട്ടെത്തുന്നത് പോലെയാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് ആ ഞങ്ങളൊരു അഞ്ചാളുണ്ടാകും അപ്പം എങ്ങനെയാണ് അതിൻ്റെ റേറ്റും ബാക്കിയുള്ള സംഭവങ്ങളക്കെ എങ്ങനെയാണ് ആ അതെ അതെ നിങ്ങൾക്കെങ്ങനെയാണ് ടി എ ഡി എ എത്രയാണെന്ന് ഒന്ന് പറയുവോ അതെ ആ ആ ആ അല്ല നിങ്ങള് ഇവിടെ വന്നാൽ മതി പാലക്കാട് റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ ആണ് വീട് റെയിൽവേ സ്റ്റേഷൻ്റെ അവടെ വന്നാൽ മതി ഞങ്ങള് അവടെന്ന് ഒരുമിച്ച് അങ്ങനേ വരാം അതെ അതെ വൺ ഡേ ട്രിപ്പാണ് വൺ ഡേ ട്രിപ്പാണ് അതെ അതെ ഓക്കെ അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് അയച്ചു തരുന്നുണ്ട് കേട്ടോ